വിനോദസഞ്ചാരികളുമായി കൂടുതൽ ഇടപെടുന്നതിലൂടെ നമുക്ക് പല രാജ്യങ്ങളിലെയും പല നാടുകളിലെയും കൾച്ചർ അഥവാ അവിടുത്തെ സംസ്കാരം പഠിക്കുവാനും ആ സംസ്കാരത്തിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുവാനും സാധിക്കും അതുപോലെ നമ്മുടെ സംസ്കാരവും അവരുടെ സംസ്കാരവും തമ്മിൽ ഒരു താരതമ്യ പഠനം നടത്തുവാനും സാധ്യമാകും അതുപോലെ അവരിൽ നിന്ന് വരുന്ന ഭാഷകൾ ഭാഷകൾ ഭാഷയുടെ വ്യത്യാസം അതുപോലെ അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വസ്തുക്കളുടെ വ്യത്യാസം അവരുടെ ചിന്താഗതിയുടെയും മനോഭാവത്തിൻ്റെയും വ്യത്യാസം ജാതി മതം ഭേദം വർണം തുടങ്ങിയ അനേകം വ്യത്യാസങ്ങൾ അനേകം കാര്യങ്ങൾ വിനോദസഞ്ചാരികളിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധ്യമാണ് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഒരു കൂട്ടിനുള്ളിൽ മാത്രം പരിമിതപ്പെട്ട് പോകാതെ ഈ ലോകം എന്താണെന്നും ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും മനസ്സിലാക്കുവാൻ നമുക്ക് കൂടുതൽ കഴിയുന്നത് ഒന്നെങ്കിൽ ഒരു യാത്ര പോവുക പല സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുക ആ സ്ഥലങ്ങളുടെ സംസ്കാരവും അവരുടെ ജീവിതവും കണ്ട് ആ സ്ഥലങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക അങ്ങനെ നമുക്ക് ഈ ലോകത്തിലെ പല സംസ്കാരങ്ങളും പഠിക്കുവാൻ സാധ്യമാകും ഇതൊന്നും സാധ്യമായില്ലെങ്കിൽ നമ്മുടെ നാട് കണ്ട് ആസ്വദിക്കാൻ വരുന്ന നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന വിദേശികളായിട്ടുള്ള വിനോദസഞ്ചാരികളുമായി കൂടുതൽ ഇടപെടുമ്പോൾ നമുക്ക് അവരുടെ സംസ്കാരത്തെ പഠിക്കുവാനും അവരുടെ സംസ്കാരത്തിന് പല തലങ്ങൾ അനുഭവിക്കുവാനും സാധ്യമാകുന്നു നമുക്കില്ലാത്ത പല യോഗ്യതകളും അവരിൽ കാണുവാനും അവർ നമ് അവരിൽ നിന്നുള്ള കുറ്റങ്ങളും നമ്മുടെ കുറ്റങ്ങൾ അവരിൽ നോക്കുമ്പോൾ അവരുടെ സംസ്കാരത്തിൽ നല്ലതായും ഒക്കെ നമുക്ക് തോന്നിയേക്കാം ഇങ്ങനെയുള്ള പഠനങ്ങൾ കൊണ്ടു തന്നെയാണ് വിദേശസഞ്ചാരികളിൽ നിന്ന് വിനോദസഞ്ചാരികളിൽ നിന്നാണ് പല ട്രഡീഷൻസും നമ്മുടെ നാടുകളിൽ രൂപം കൊണ്ടത് നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു പങ്കെന്ന് പറയുന്നതും ഇതുപോലുള്ള വിനോദസഞ്ചാരികളുടെ സംഭാവനകളെയാണ് ഒരു പുതിയ സംസ്കാരത്തെ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസത്തിൻ്റെ ഉദാഹരണമാണ് ഒരു കൂട്ടിനുള്ളിൽ നിന്നു കൊണ്ട് പുസ്തകത്താളുകളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ വിദ്യ എന്നത് വിദ്യാഭ്യാസമായി മാറ്റപ്പെടുകയില്ല പകരം ഈ ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് അറിഞ്ഞ് മറ്റുള്ളവരുടെ സംസ്കാരത്തെ പഠിക്കുമ്പോഴാണ് നമുക്കൊരു സാമൂഹിക ബോധവും നമ്മുടെ സംസ്കാരത്തെപ്പറ്റിയുള്ള അവബോധവും നമ്മുടെ ജീവിത തലങ്ങളിൽ ഉണ്ടാകുന്നത് ഒരിക്കൽ വിദേശത്തു നിന്ന് ഒരു മനുഷ്യൻ നമ്മുടെ നാടിലേക്ക് കടന്നു വരിക ഉണ്ടായി ആ മനുഷ്യനെ കൗതുകത്തോടെ നോക്കുന്ന ആദിവാസി ജനങ്ങളെ എഴുത്തുകാരൻ എടുത്തു കാണിക്കുന്നുണ്ട് കാരണം അവർ ഇന്നേവരെയും ഇതുപോലെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല ഇതുപോലൊരു മനുഷ്യനെ അവരുടെ ജീവിതത്തില് ദര്ശിച്ചിട്ടില്ല ആ മനുഷ്യനും അതിശയമാണ് താൻ ഇന്നുവരെ ഇതുപോലെ ഒരു ജനവിഭാഗത്തെ കണ്ടിട്ടില്ല മനുഷ്യൻ്റെ ആദ്യകാലങ്ങൾ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ഇപ്പോഴും വലിയ മാറ്റങ്ങൾ ഒന്നും വരുത്താതെ നിലകൊള്ളുന്ന ഒരു കൂട്ടത്തെ കണ്ട് അതിശയത്തോടു കൂടി വിദേശികൾ ആദിവാസി ജനതയെ നോക്കുകയാണ് ഇതുപോലെയുള്ള സാംസ്കാരിക വ്യത്യാസങ്ങളും സാംസ്കാരിക ബോധങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആഴങ്ങളിലേക്ക് സംസ്കാരങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ്